ഒട്ടും മുന്നോട്ടും അല്ല പിന്നോക്കം അല്ലാന്നു പറയാന് സാധിക്കില്ല എന്താന്നു ചോദിച്ചാൽ നമ്മള് ഡിഗ്രി എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു കോഴ്സ് വേണം നമുക്ക് ഏതെങ്കിലും ജോബിലോട്ട് കേറാൻ പക്ഷേ നമ്മള് ഡിഗ്രി ഒക്കെ എടുക്കുകയാണെകില് നമുക്ക് കുറെ ജോബ് ഒപ്ഷന്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് പക്ഷേ എന്താ പറയുക ഇപ്പം ഡിഗ്രി ഒക്കെ എടുക്കുമ്പോഴാണെങ്കിൽ ഒരു ലക്ഷ്യം വെച്ച് എടുക്കുകയാണെങ്കില് നമുക്ക് നല്ലതാ എന്നു പറയാം ചിലരൊക്കെ ആണെങ്കിൽ ഇപ്പം കുറച്ച് നമ്മുടെ എന്താ പറയുക കോളേജ് ലൈഫ് എന്ജോയ് ചെയ്യാന് വേണ്ടിയാണ് ഡിഗ്രി എടുക്കുന്നത് പക്ഷേ ഡിഗ്രീല് വെറുതെ തമാശ കളിച്ചു നടന്ന് ഓരോ സപ്ലിയും മേടിച്ചു വെറുതെ വീട്ടില് ഇരിക്കുന്നതിലും നല്ലത് ആ സമയം നമുക്ക് വേറെ ഏതെങ്കിലും നന്നായി ഡിഗ്രി പഠിച്ചു നമുക്ക് ഏതെങ്കിലും ഡ്രീം നമുക്ക് സെലക്ട് ചെയ്യാന് പറ്റും പിന്നെ പറയുക ആണെങ്കില് ഡിഗ്രി എന്താ അത്ര പിന്നോക്കമല്ല എന്ന് തന്നെ പറയാം ഡിഗ്രി കൊണ്ട് കുറെ പേര്ക്ക് നല്ല ജോബ് കിട്ടീട്ടുണ്ട് അതുപോലെത്തന്നെ നമുക്ക് നല്ല സഹായകരവും എല്ലാം ആണ് ഡിഗ്രി എന്ന് പറയുന്നത്